ഫോർമൻ്റഡ് സോയാബീൻ സോയാബീൻ ഒരു നല്ല ഹൈ പ്രോട്ടീൻ ഐറ്റമാണ് അത് എന്നാ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോയാബീനിൽ നിന്നും പാൽ പിരിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് അതിൽ നിന്നുണ്ടാകുന്ന സാധനം ഫോർമൻ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ സോയാബീൻ എന്നു പറയുന്നത് അതിനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്നാക്സിനകത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അതിനെ നമുക്ക് എന്താ കറികളായിട്ട് ഉപയോഗിക്കാം വെജിറ്റേറിയൻ സാധനങ്ങൾ ഉപയോഗിക്കുന്ന വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചെടുത്തോളം ഈ സോയാബീൻ നല്ലയൊരു അനുഗ്രഹമാണ് പല സദ്യകളിലും ഇപ്പോൾ സോയാബീൻ ഒരു ഒരു ഡിഷായിട്ട് ഉപയോഗിക്കാറുണ്ട് സോയാബീനെ വെള്ളത്തിൽ കുതർത്ത് വറുത്തെടുത്തിട്ട് നമ്മൾ മീറ്റ് കറി ഉണ്ടാക്കുന്നതുപോലെ ഉണ്ടാക്കാൻ നല്ലതാണ് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റായതിനാൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതുമായ ഒരു ഐറ്റമാണ് കട്ട്ളെ ഫിഷ് കട്ട്ളെ ഫിഷെന്നു പറയുന്നത് നമ്മുടെ സമുദ്രങ്ങൾ ബാക്ക് വാട്ടേഴ്സിലുണ്ടാകുന്ന ഒരു നല്ല ഒരു മീനാണ് കട്ട്ളാ കട്ട്ളാ ഫിഷ് അതിനെ നമുക്ക് സംസ്കരിച്ചെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് മൃദുവായ മാംസത്തോടു കൂടിയ പരന്ന ഒരു മീനാണ് കട്ട്ളാ ഫിഷ് അതിന് അതിൻ്റെ സ്കെയിൽസ് അതായത് ചെതുമ്പൽ എന്നു പറയുന്നത് നല്ല കട്ടിയുള്ളതാണ് വളരെ ടേസ്റ്റിയായിട്ടുള്ള മൃദുവായിട്ടുള്ള ഒരു മീനാണ് കട്ട്ളാ ഫിഷ് മില്ലെറ്റിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇന്നത്തെ ജീവിത രീതിയിൽ മില്ലറ്റ്സ് ഉപയോഗിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മില്ലറ്റ്സിൽ സൺഫ്ലവർ സീഡ് സോയ സീഡ് എന്നാ സിംലാ സീഡ് പിന്നെ തുടങ്ങി പല സീഡ് മില്ലറ്റ്സുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് മില്ലറ്റ്സിനെ പൊടിയാക്കി നമുക്ക് ഭക്ഷണമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാം മില്ലറ്റ്സിനെ അല്ലാതെ ഡയറക്ട് നമുക്ക് കഴിക്കാം പിന്നെ പംകിൻ സീഡ് അങ്ങനെ കുറെ സീഡുകൾ കൂട്ടിച്ചേർത്ത് നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ നില ചെയ്തു പോവാൻ വേണ്ടി ഇന്ന് ഉപകരിക്കുന്നൊരു നല്ല ഒരു ഐറ്റമാണ് അതിനെ എല്ലാവരും തന്നെ ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും തന്നെ ഉപയോഗിച്ചു തുടങ്ങണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം